ഞാൻ ജീവിതത്തിൽ കുറെ കാര്യങ്ങൾക്ക് വില കല്പിക്കുന്ന ആളാണ് സമയത്തിന് ഒരുപാട് വാല്യു കൊടുക്കുന്ന ആളാണ് കാരണം ഒരിക്കലും നമുക്ക് തിരിച്ചു പോയ സമയം കിട്ടാറില്ല അല്ലെങ്കിൽ മുൻപത്തെ കാര്യങ്ങൾ ഓർത്ത് അല്ലെങ്കിൽ ചെയ്തുപോയ കാര്യങ്ങൾ ഓർത്തു വിഷമിച്ച് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ സമയം കളയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ഒരുപാട് ബന്ധങ്ങൾക്ക് വില നൽകുന്ന ആളാണ് അത് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരുപാട് എന്താ പറയുക ബന്ധങ്ങൾക്ക് വില കല്പിക്കുന്ന ആളാണ് ബന്ധങ്ങൾ തകർന്ന് പോകാതിരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് ബന്ധങ്ങൾ എന്നു പറയുമ്പോൾ നമ്മൾ നമ്മൾ തമ്മിലുള്ള എന്റെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം തകർന്നു പോകാതിരിക്കാൻ ഞാൻ നോക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ നമ്മൾ അച്ഛൻ അമ്മ സഹോദരി സഹോദരൻ അതിനപ്പുറം ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട് അവരുമായിട്ടുള്ള ഒരുപാട് ബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു സംഭാഷണം അവരുമായിട്ടുള്ള ഒരു ആശയവിനിമയം ഞാൻ എപ്പോഴും നടത്താറുണ്ട് അതിന്റെ ഇടയിൽ ഒരു വിള്ളിച്ച വരാതിരിക്കാൻ ഞാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട് പിന്നീട് ഒരുപാട് ഞാൻ വിലകല്പിക്കുന്നതാണ് ജീവിതത്തിലെ ലക്ഷ്യം ഒരിക്കലും നമ്മൾ ജീവിതത്തിലെ ലക്ഷ്യം എന്താണെന്ന് മറന്നു കൊണ്ട് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുക അതു പറഞ്ഞ് നമ്മുടെ എപ്പോഴും ജീവിതത്തിൽ ലക്ഷ്യത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം അതിനെക്കുറിച്ച് എപ്പോഴും നമ്മൾ പ്രയത്നിക്കണം അതുപോലെ തന്നെ ഒരു സ്ഥിരത എന്നു പറയുന്നത് എന്റെ ജീവിതത്തിൽ കുറച്ച് കുറച്ച് നല്ല പ്രാധാന്യമുള്ള കാര്യമാണ് നമ്മൾ എതൊരു കാര്യം ചെയ്യും സ്ഥിരമായി അല്ലെങ്കിൽ സ്ഥിരമായി നമ്മൾ അതിന് പരിശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായും അതിനൊരു പിന്നീട് അതിനൊരു ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും അങ്ങനെ സ്ഥിരതയ്ക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന ഒരാളാണ്